അ പോകാം പോകാം ആ പോകാം പോകാം എങ്ങോട്ടാണ് പോകേണ്ടത് മഞ്ചേരിയോ ആ ആയിക്കോട്ടെ അഞ്ഞൂറ്റി അമ്പത് റുപ്പിക വരും കെട്ടോ കുറവുമൊന്ന് ചോദിച്ചാൽ അതിതുവരെ അഞ്ഞൂറ്റമ്പത് റുപ്പിക എന്ന് പറയുമ്പം ഒരു പത്തിരുപത് റുപ്പിക കുറയ്ക്കാൻ പറ്റും ആ വണ്ടി അടക്കം നിങ്ങൾക്ക് മഞ്ചേരി എവിടേക്കാണ് പോകേണ്ടത് കച്ചേരിപ്പടി കോഴിക്കോട് സ്റ്റാൻറ്റിലേക്ക് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് തന്നെ വേണ്ടി വരും കെട്ടോ ബസ്സുണ്ടാകില്ല ഇജ്ജ് ബെസ്സിന് കാത്ത് നിൽക്കുകയാണെങ്കിൽ എന്തായാലും നിനക്ക് കുറെ ടൈം എടുക്കും ബസ്സ് കിട്ടണമെങ്കിൽ അ അവിടെ വെയ്റ്റിങ്ങൊന്നും ഉണ്ടാവില്ലല്ലൊ ആ അ ആ അ പിൻ ആ ആയിക്കോട്ടെ പിന്നെ എനിക്ക് അഞ്ഞൂറ്റമ്പത് ഞാൻ പറഞ്ഞതൊന്നുമല്ല പിന്നെ എനിക്ക് ഇവിടുന്ന് മടക്കവും കിട്ടില്ലേ ആ ഈ സമായതുകൊണ്ട് അപ്പം അതൊക്കെ പ്രശ്നമാണ് അപ്പോൾ അഞ്ഞൂറ്റമ്പത്ത് തരാന് പറ്റുവെങ്കിൽ നമുക്ക് പോകാം

എന്നാൽ പോകാം പോകാം ഓക്കെ ഓക്കെ